അതെ ഇതാരാണ് സംസാരിക്കുന്നത് കുറച്ച് കുറച്ച് വെയിറ്റ് ചെയ്യുമോ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോട്ടേ അയ്യോ ഞങ്ങളുടെ മെയിൻ റൂംസ് എല്ലാം ബുക്ക്ഡ് ആണല്ലോ മാഡത്തിന് എത്ര ഗസ്റ്റ് കാണുമായിരിക്കും അമ്പത് പേർ അല്ലേ ഓ ഞങ്ങൾക്ക് വേറെ ഒരു റൂം ഉണ്ട് അത് ബൂക്ക്ഡ് അല്ല ഇപ്പം മാഡം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ അത് എന്നാൽ റിസേർവ്ഡ് ആക്കിത്തരാം ഓക്കെ ഫുഡ് എങ്ങനത്തെയാണ് മാഡത്തിന് വേണ്ടത് ഫുഡ് ഫുഡ് ഇൻ ഞങ്ങൾ ഞങ്ങൾ മെയിൻ ആയിട്ട് ചൈനീസ് ഡിഷസ് ആണ് ചെയ്യുന്നത് അപ്പം ആണോ മാഡം ഓക്കെ ഞാൻ എന്നാൽ നമ്മുടെ ഇന്ത്യൻ ക്വിസീൻ തന്നെ സെലക്റ്റ് ചെയ്യുവാണേ അത് ന നമുക്ക് അത് ഔട്ട്ഡോർ സെറ്റ് ചെയ്യാം തീർച്ചയായും ഓക്കെ മാഡം പേടിക്കേണ്ട തീർച്ചയായും ഓക്കെ ഓക്കെ ഷുവർ ഇല്ല മാഡം ശു ഉറപ്പായിട്ടും